എൻ്റെ പ്രദേശത്ത് സ്കൂളിൽ ചരിത്രം പഠിപ്പിക്കാറുണ്ട് ശരിക്ക് പറഞ്ഞാൽ നമ്മൾ ചരിത്രം മനസ്സിലാക്കുന്നത് സ്കൂളുകളിൽ നിന്ന് തന്നെയാണ് കൂടുതലും പണ്ട് നമുക്ക് വേണ്ടി പൊരുതിയ മഹാത്മാക്കളുടെയും അതുപോലെ തന്നെ വലിയ നേതാക്കന്മാരുടെയെല്ലാം ചരിത്രം നമുക്കറിയാൻ കഴിയുന്നത് സ്കൂളുകളിൽ കൂടി തന്നെയാണ് സ്കൂളുകളിൽ പഠിച്ചിരിക്കേണ്ട എല്ലാ ചരിത്രവും സ്കൂളിൽ പഠിപ്പിക്കണം കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ സ്വാതന്ത്ര്യം ലഭിച്ചുവെന്ന് കുട്ടികൾ മനസ്സിലാക്കണം പല സമരങ്ങളും നടത്തിയാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അതുപോലെ തന്നെ ഉപ്പ് സത്യാഗ്രഹം ആയിക്കോട്ടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ നടന്ന ക്വിറ്റ് ഇന്ത്യ സമരം ആയിക്കോട്ടെ ഇതെല്ലാം ശരിക്ക് പറഞ്ഞാൽ സ്വാതന്ത്ര്യം നേടിത്തരാൻ വലിയ പങ്ക് വഹിച്ച ഓരോ സമരങ്ങളാണ് ഇതുപോലെ തന്നെ അനവധി സമരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് യാതനകളും അനുഭവിച്ചാണ് നമുക്ക് വേണ്ടി നമ്മുടെ നമ്മുടെ മുതിർന്ന നമ്മുടെ പൂർവ്വീകർ നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തന്നത് അപ്പോൾ ഇതെല്ലാം സ്കൂളുകളിൽ നിന്ന് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞ് കൊടുക്കേണ്ടത്ത് അനിവാര്യമാണ്